വെള്ളത്തിൻ്റെ ആവശ്യകതയുണ്ട് പല പോഷക മിശ്രിത പയറു വർഗ്ഗങ്ങൾ മുളപ്പിച്ചു പച്ച മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ കഴിക്കുക രാവിലെ എഴുന്നേറ്റ് ബ്രെ ബ്രേക് ഫാസ്റ്റിന് മുളപ്പിച്ച പ പയറുവർഗ്ഗങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത് വൈകിയിട്ടും അതുപോലെതന്നെ പച്ചക്കറി ധാരാളം ഉപയോഗിക്കും ചോ ചോറ് ചോറ് അതുപോലെയുള്ള ഭക്ഷണങ്ങൾ അരിയാഹാരത്തിനേക്കാളും കൂടുതൽ പച്ചക്കറിയും വെജിറ്റബിൾസും ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത് പച്ച വെജിറ്റബിൾസ് ആൻറ്റ് ഈ പയറുവർഗ്ഗങ്ങൾ മുളപ്പിച്ചതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അതിനകത്തു നിന്ന് കുറേ പ്രോട്ടീൻ റിച്ച് കിട്ടാറുണ്ട് പോഷകാഹാരം അതിനകത്തുണ്ട് പിന്നെ പാല് മുട്ട പിന്നെ മീ ഇറച്ചിയും മീനും നമ്മുടെ അതിൻറ്റേതായ രീതിയിൽ തന്നെ കഴിക്കേണ്ടതുണ്ട് അതിലൂടെ ഒക്കെ ആവശ്യമുള്ള പോഷാകാഹാരം കിട്ടുള്ളൂ പിന്നെ വെള്ളം വെള്ളം നമ്മൾ ധാരാളം എപ്പോഴും കുപ്പിയിൽ വെള്ളം കയ്യിൽ കയ്യിൽ കരുതിയിരിക്കാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇടക്ക് വെള്ളം കുടിക്കാറുണ്ട് എങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ഓടുന്ന സമയത്തു ഒത്തിരി ജലാംശം പോകുന്നുണ്ട് വിയർത്തു വിയർപ്പിലൂടെ അതുകാരണം ഇഷ്ടം പോലെ വെള്ളം കുടിക്കേണ്ടതുണ്ട് ദാഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുപ്പിയിലുള്ള വെള്ളം തീർത്ത ഉടനെ അടുത്ത കുപ്പി നിറച്ചു വെച്ചു വീണ്ടും കുടിക്കുന്ന രീതിയാണ്